ഇപ്പോൾ ഞാൻ മലയാളം ഭാഷയിൽ ആണ് കൂടുതലും എഴുതാറുള്ളത് മലയാളം ഭാഷയെ സംബന്ധിച്ചടുത്തോളം നമ്മുടെ മാതൃഭാഷയാണ് മലയാള ഭാഷ എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ച് എഴുതുമ്പോൾ ആ ഒരു ഭാഷയിൽ എഴുതുമ്പോ തന്നെ വളരെ അഭിമാനമുള്ള കാര്യമാണ് കവിത കഥ ഒക്കെ എഴുതാനാണ് എനിക്ക് ഏറെ ഇഷ്ട്ടം യാത്രാനുഭവങ്ങൾ ആണെങ്കിലും ഇപ്പോൾ ജീവിതത്തിൻ്റെ ചെറിയ ഒരു അനുഭവ കുറിപ്പ് ആണെങ്കിൽ പോലും എഴുതാൻ വളരെ അധികം ഇഷ്ട്ടമാണ് എന്നെ വളരെ അധികം സ്വാധീനിച്ച എഴുത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ബുക്ക്സ് ആണ് ബഷീറിൻ്റെ തുടങ്ങിയവരുടെ ഒക്കെ ഇപ്പോ മാധവിക്കുട്ടി പപ്പേട്ടൻ കെ ആർ മീര തുടങ്ങിയവരുടെ പുസ്തകങ്ങൾ ഞാൻ അവരെ ഞാൻ ഫോള്ളോ ചെയ്യുന്നുണ്ട് അവരുടെ പുസ്തകങ്ങൾ വായിക്കാറുണ്ട് വായന തന്നെയാണ് എന്താ ഒരു എഴുത്തിൻ്റെ ഒരു അടിയുറപ്പ് എന്നൊക്കെ പറയാം അത് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ട് പിന്നെ സ്കൂളിലെ കോമ്പറ്റിഷൻസിലൊക്കെ പങ്കെടുക്കാറുണ്ട് അതിൽ വേണ്ട വിധത്തിലുള്ള പരിഗണനയും കാര്യങ്ങളും നമുക്ക് റാങ്കും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നൊക്കെ ഇണ്ട്